ചിത്രം വരച്ചു തുടങ്ങുന്നവർക്ക് അവരുടെ കഴിവ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ബെറ്റെർ ആയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യമാദ്യം വരയ്ക്കുമ്പത്തേക്കും സിംപിൾ സിംപിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വരച്ച് പഠിക്കാൻ നോക്കുക അതു പോലെ തന്നെ വരയ്ക്കുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ തെറ്റാണ് എന്ന് തോന്നുന്ന കാര്യം അങ്ങനെ തെറ്റായിട്ടുള്ള രീതിയിൽ വരച്ചു പഠിക്കാതിരിക്കുക അത് നമ്മൾ എപ്പോഴും തെറ്റായിട്ട് അത് ചിലപ്പം ഈ തെറ്റായിട്ട് വരയ്ക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചു എളുപ്പമായിട്ട് തോന്നുന്നത് അപ്പം പക്ഷെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് തെറ്റായിട്ട് നമ്മൾ വരച്ചു പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ഒരിക്കലും ക്ലിയർ ചെയ്തു പോകാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടുള്ളത് ഇതാണെങ്കിലും കുറച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ടി വന്നാലും അതിനെ കറക്റ്റ് ആയിട്ടുള്ള വഴിയേ നമ്മൾ അത് ചൂസ് ചെയ്യുകയാണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ള വഴിയാണ് നമ്മൾ അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്താണ് പറയുക കുറച്ച് നാളുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷെ ഇന്ന് നമ്മൾ തെറ്റാണ് പഠിക്കുന്നത് തെറ്റാണ് നമ്മൾ വരച്ചു പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ഒരിക്കലും ക്ലിയർ ചെയ്തു പോകാൻ പറ്റത്തില്ല നമുക്ക് ഒരിക്കലും അത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും നമ്മൾ അ ത് തെറ്റ് തന്നെയാണ് ചെയ്തു കൊണ്ടിരിക്കുക നമ്മളെ എടുത്ത് ആരൊക്കെ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാലും നമ്മളെ കൊണ്ട് അത് കറക്റ്റ് ചെയ്യാനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് വരച്ചു തുടങ്ങുന്നവരാണെന്ന് ഉണ്ടെങ്കിൽ അവർ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് കറക്റ്റ് ആയിട്ട് തന്നെയാണ് വരച്ച ആദ്യമാദ്യം തെറ്റുകൾ സംഭവിക്കും ഇല്ല എന്നല്ല ആദ്യമേ ക്ലിയറായിട്ട് തന്നെ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അത് വരച്ച് തുടങ്ങുന്നവരുടെ ലക്ഷ്യമല്ല അതേസമയം അത് ആദ്യമേ കറക്റ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം എന്നല്ല പറയുന്നത് പക്ഷെ വരച്ചു പഠിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് അത് തെറ്റായിട്ടും വരത്തില്ല തെറ്റ് തിരുത്തേണ്ട ഒരു അവസ്ഥയും നമുക്ക് പിന്നെ വരത്തില്ല പിന്നെ ഉള്ളത് വരച്ചു കഴിവുകൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വരയ്ക്കാൻ ഒരുപാട് താൽപര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ടൈം പഠിക്കും സ്കൂളിലെ പുസ്തകങ്ങളൊക്കെ നമുക്ക് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ കഴിവ് കൂടെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം അതിന് ഇപ്പം വരയ്ക്കാൻ അറിയാവുന്നുള്ള കുട്ടികളോട് ചെറിയ ചെറിയ ടിപ്പൊക്കെ ചോദിക്കാം എങ്ങനെ ഇത് ഇപ്പോൾ അവർ ഒരു പിക്ച്ചറ് വരച്ചു നമുക്ക് അത് ഇഷ്ടായി എന്ന് വച്ചോ അവരോട് ചോദിക്കുക ഇത് എങ്ങനെ വരച്ചു എത്ര സമയമെടുത്തു വരച്ചു തീർക്കാൻ ഇതേ എളുപ്പത്തിൽ വരയ്ക്കാൻ എന്താണ് വഴി ഇത് വരയ്ക്കാൻ ഉപയോഗിച്ച പെൻസിൽ അതാണ് അപ്പം നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ടൂൾസാണ് കേട്ടോ കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് വച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പോയിൻ്റ് പെന് അല്ലെങ്കിൽ കറുത്ത കളറ് വരുന്ന പെൻസിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട് അപ്പം വരയ്ക്കുന്നതിന് കറക്റ്റ് ആയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് നോട്ട് സോറി വരയ്ക്കുന്നതിന് കറക്റ്റ് ആയിട്ട് സെറ്റാവുന്ന പേപ്പറുള്ള ഇതുണ്ട് ബുക്ക് ബുക്കുണ്ട് അപ്പം ആ ബുക്ക് വാങ്ങിച്ചിട്ട് ആ ബുക്കിൽ വരയ്ക്കാൻ പിന്നെ അതിന് ഉപയോഗിക്കുന്ന പെൻസില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കറക്റ്റ് അയിട്ട് ശേഖരിച്ചിട്ട് വരയ്ക്കാമെന്നുണ്ടെങ്കിൽ വരയ്ക്കാൻ അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ ഇ സാധനങ്ങളൊക്കെ വളരെ ഉപകാരപ്രഥം ആകും പിന്നെ അതു പോലെ തന്നെ ഫ്രണ്ട്സിനോട് ചോദിക്കാൻ വീട്ടിൽ അമ്മയോ പപ്പയോ അല്ലെങ്കിൽ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലുമൊക്കെ വരയ്ക്കുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൂടാൻ പോയിരുന്നു നമ്മൾ വരച്ചു വരച്ചു പഠിക്കുക കൂടുതലായിട്ടും എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്നതും അതും ഭംഗിയുള്ളതും ആയിട്ടുളള പിക്ച്ചർസ് സെലെക്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ വരയ്ക്കാനുള്ള പ്രാക്ടീസ് എടുക്കുക എന്നുള്ളതാണ് പരിശീലനം നമുക്ക് എല്ലാ കാര്യത്തിനും മെയിൻ ആയിട്ട് വേണം എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് നന്നായിട്ട് നല്ല രീതിയിൽ പരിശീലിക്കാൻ ശ്രമിക്കണം